മലയാള ഭാഷാ സംസ്കൃത ഭാഷയുടെ ഒരു വക ഭേദമാണ് സംസ്കൃത ഭാഷയ്ക്കു മുൻപ് അതിനു ശേഷം മലയാള ഭാഷയ്ക്ക് മുൻപിവിടെ തമിഴായിരുന്നു കൂടുതൽ പ്രാമുഖ്യത്തിലുണ്ടായിരുന്നത് നമ്മുടെ സംസ്ഥാനം നിലയിൽ വന്ന ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ മലയാളമായി തീരുകയും എന്നാൽ മലയാള ഭാഷയിലുപയോഗിക്കുന്ന കൂടുതൽ വാക്കുകളും സംസ്കൃത ഭാഷയുടേതു തർജ്ജമ അതിൻ അതുമായി ടെ തർജ്ജമ ചെയ്ത ഭാഷയാണ് ഇന്നുപയോഗിക്കുന്നത് ഇന്ത്യയിൽ പതിനാല് ഔദ്യോഗിക ഭാഷയുണ്ടെങ്കിലും മലയാളത്തിനു പ്രമുഖ സ്ഥാനമുണ്ട് മലയാളം മറ്റുള്ള ഭാഷകളെക്കാൾ എഴുതുവാനും വായിക്കുവാനും വളരെ സരളവും സഹജവുമാണ് ഇന്ത്യയിലെ ഏതൊരു ഭാഷയെ ഇട്ടു സംസാരിച്ചു നോക്കിയാലും മലയാള ഭാഷയുടെ ഒരു വഴക്കം മറ്റ് ഭാഷകൾക്ക് കിട്ടുന്നില്ല മലയാള ഭാഷയ്ക്ക് വ്യക്തമായ സ്വരാക്ഷരങ്ങളും വ്യഞ്ചനാക്ഷരങ്ങളുമുണ്ട് ഒരു അക്ഷരം എഴുതിയാൽ അത് തന്നെ വായിക്കണം എന്നാൽ തമിഴ് കന്നഡയ്ക്ക് വ്യത്യാസമുണ്ട് ഒരക്ഷരം പല രൂപത്തിലും എഴുതിയാലും അതു പല രൂപത്തിലാണ് വായിക്കാൻ കഴിയുന്നത് പക്ഷെ മലയാള ഭാഷയ്ക്ക് അങ്ങനെയല്ല മലയാള ഭാഷാ വ്യക്തമായ സ്വരാക്ഷരങ്ങളും വ്യഞ്ചനാക്ഷരങ്ങളുമുള്ളതിനാൽ എന്താണോ എഴുതുന്നത് അതു തന്നെ വായിക്കേണ്ടി വരും പിന്നെ നമ്മുടെ മലയാള ബാഷയുടെ പിതാവായിട്ട് തുഞ്ചത്ത് എഴുത്തച്ഛനെയാണ് നമ്മൾ മനസ്സിലാക്കി പോന്നിട്ടുള്ളത് അത് മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ അദ്ദേഹം നമ്മുടെ തെരൂർ തുഞ്ചൻ പറമ്പിൽ മുൻപേ തുഞ്ചത്ത് തുഞ്ചത്ത് എഴുത്തച്ഛൻ സ്മാരകം ഉണ്ട് പിന്നെ മലയാളം സർവകലാശാലയുണ്ട് മറ്റു ഭാഷകളെക്കാൾ കൂടുതൽ ആളുകൾ ഇന്നു മലയാളം ഭാഷ ഇഷ്ടപ്പെടുന്നുണ്ട് കേരള സർക്കാരിൻ്റെ മലയാളം ബാഷ അറിയാത്തവർക്കായി ഒരു പച്ച മലയാളം എന്നുള്ള ഒരു പദ്ധതി തന്നെ സാക്ഷരത മിഷനുമായി ബന്ധപ്പെട്ടു നടക്കുന്നുണ്ട് പച്ച മലയാളം കൊണ്ടുദ്ദേശിക്കുന്നത് അന്യ സംസ്ഥാനത്തു നിന്നു വന്നിരിക്കുന്ന ആളുകൾക്ക് മലയാളം എഴുതുവാനും പിന്നെ പഠിക്കുവാനും വേണ്ടി ഉള്ളൊരു പ്രത്യേക രീതിയാണ് പച്ച മലയാളം